എന്നെ യോഗ പഠിപ്പിച്ചത് സൂര്യനാരായണൻ എന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ അറിയപ്പെടുന്നൊരു യോഗാഗുരു ഗുരുവാണ് അദ്ദേഹം എന്നെ യോഗയിലൂടെ പലപ്പോഴും പ്രചോദിപ്പിക്കുന്നുണ്ട് കാരണം യോഗ ചെയ്യുമ്പോൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാവും പിന്നെ ഇങ്ങനെ ഒരു ഒരു റിലാക്സേഷൻ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ യോഗ ചെയ്യുന്നത് യോഗ പലപ്പോഴും മനുഷ്യനെ നന്നായി എന്താ പറയുക ഉപയോഗിക്കാൻ സഹായിക്കുന്നു